പാലക്കാട് ജില്ലയിലുള്ളൊരു കലാപരിപാടിയാണ് പൊറാട്ട് നാടകം ഇപ്പോഴത്തെ തലമുറയിലുള്ളവരൊന്നും അധികം ഈ പരിപാടി കാണാറില്ല അതുകൊണ്ട് ഇവർക്ക് പരിപാടികളൊക്ക ഭയങ്കരം കുറവാണ് പിന്നെ ഇവർ പരിപാടികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വഴികളൊക്കെ നോക്കുന്നുണ്ട് അവരിപ്പോൾ ഒരുപാട് ഇത് സ്ഥലങ്ങൾ ഒരുപാട് പേർക്കിത് ഈ പരിപാടിയെക്കുറിച്ച് ഇപ്പോൾ അറിയില്ല അപ്പം അവർ എല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള അമ്പലങ്ങളിലും അതുപോലുള്ള പരിപാടികളിലൊക്കെ ഈ പരിപാടിക്കൊരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളിൽ ഇവർ ഇവരുടെ ആ കലയെക്കുറിച്ചൊക്കെ പറയുകയും ആ കലാപരിപാടികളുടെ വീഡിയോക്കെ പോസ്റ്റ് ചെയ്യുകയും ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇവർക്കൊരു കമ്മിറ്റിയും ഒരു കമ്മറ്റിയെക്കൂടി ഇവർ ആ കമ്മറ്റിയിൽ നിന്നും ഇവർ പരിപാടിക്കാർ പരിപാടികൾക്ക് വേണ്ടിയിട്ട് മുൻഗണന നൽകി അതെല്ലാവരിലോട്ടും എത്തിക്കാൻ വേണ്ടി ഒരു മീറ്റിങ്ങൊക്കെ കൂടാറുണ്ട്